ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് നൂറ്റി ഇരുപത്തി അഞ്ച്